അവസരങ്ങൾ ഏതാണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുണി എടുത്ത് എല്ലാം എന്താ നമുക്ക് തുണി എടുത്ത് ശരിക്കും കൊടഞ്ഞ് അത്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സർഫോ അല്ലെങ്കിൽ സർഫില്ലെങ്കിൽ മറ്റേ വെള്ളത്തിലിട്ട് ഒന്ന് ഒന്ന് കുതിർത്താൽ കുതിർത്തേണ്ടത് സർഫ് ഇല്ലെങ്കിൽ സോപ്പ് ഇട്ട് ശരിക്കും എന്ന് വസ്ത്രത്തിൽ ശരിക്കും തേച്ച് അത് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടാം അതല്ല ഇനി ഇപ്പം സർഫ് വാങ്ങണത് ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണെങ്കിൽ സർഫ് കുറച്ച് അതെന്തോരം തുണിയുണ്ട് ആ ഇപ്പം ഇവർ ഒരു മൂന്ന് നാല് അഞ്ച് ഷർട്ടോ മുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് ഒരു മുക്കാൽ ഭാഗം വെള്ളം എടുക്കാൻ അതിനകത്തേക്ക് ഒരു സർഫ് ഇട്ട് ശരിക്കും മരവിപ്പിച്ചിട്ട് ഈ തുണി അതിനകത്തേക്കിട്ട് മുക്കുക അങ്ങനെ മുക്കി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് കഴിയുമ്പോൾ നമ്മള് ആ വെള്ളത്തില് ഇടണം വെളത്തിലിട്ട്ട്ട് വേണം അത് അത് നമ്മള് ചെയ്യുന്ന അലക്കി ആ ശെരിക്ക് കുത്തി പിഴഞ്ഞ് എല്ലാം അവടെ ഇട്ട് ഇട്ടിട്ട് നമ്മള് ആ ശെരിയാക്കണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ എന്താ എന്ന പശ മുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ അത് ഒരു കുറച്ച് വെള്ളമെടുക്കാ പശ അങ്ങനെ കുറച്ച് ഒരു പശനെ അനുസരിച്ച് ഒണക്കാനുള്ള തി പശ പിടിക്കണത് മുണ്ടാണോ ഷർട്ടാണോ നോക്കണം അന്ന്ട്ട് വേണം അതിനാത്തേക്ക് മറ്റേ പശ ഒഴിക്കാനായിട്ട് വേണ്ട തേ മ ഒഴിച്ചിട്ട്ത് ഇങ്ങനധിക ഈ മറ്റ ആയത്തെ വെള്ളം പിഴഞ്ഞ് കളഞ്ഞിട്ട് വണം ഇതിനത്തേക്ക് സാരി മുണ്ടും ഷർട്ടും മുക്കി മുക്കി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടു എടുക്കാ അത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മള് ഒരാങ്കറില് എടുത്തിട്ട് വേണം അതെല്ലാം നിവർത്തി ഇടാം വേറെച്ചാ പിന്നെ വേറെ വേറൊരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ശെരിക്കും വല്യ നല്ല ചുട്ടു പൊള്ളുന്ന വെയിലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞിണ്ട്ച്ചാ വസ്ത്രത്തിന് എന്താച്ചാ ഇച്ചരെ നെറമങ്ങും അപ്പ അത്ണ്ടാവാ ഇണ്ടാവാണ്ടിരിക്കാൻ ചെറുതുകളും അധികം ഷെയ്ഡൊള്ള വെയിലുകൊള്ളാത്തൊരു സ്ഥലം നോക്കിയാണ് നമ്മള് വസ്ത്രം ഒണക്കാനായിട്ട് അങ്ങനെയുള്ള ഗുണം ചെയ്യാന്ന് വെച്ചാ നമുക്ക് വെച്ച് കഴിഞ്ഞാ വസ്ത്രത്തിന് നെറ മങ്ങലോ ആ അങ്ങനൊന്നാ ഇണ്ടാവില്ല അങ്ങനെ നമ്ക്ക് നമ്ക്ക് ഏറ്റങ്ങനെ അറിയെ അറിയേണ്ടത് പിന്നെ പിന്നെ ഒള്ള കാര്യന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ ഈ ഇതിനാത്തേക്ക് മറ്റേ ഈ കോട്ടണല്ലാണ്ട് മറ്റേ മ ഇതുണ്ടല്ലോ മറ്റേ എന്നതാ അയിന നൈലൊ അങ്ങനത്തെത് പ്ലാസ്റ്റിക് കോട്ടൊള്ളത് അതിനാത്തൊന്നും പശ പിടിക്കില്ലട്ടോ അപ്പ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാ നമുക്ക് സുഖായിട്ട് നമുക്ക് അതക്കനെ പറ്റി ശെരിക്കും മനസ്സിലാക്കാനും ഇങ്ങനെ ചുട്ട്പൊളളൂന്ന വെയിലത്ത് ഈ വസ്ത്രം കൊണ്ടിടാണ്ട് നമ്മള് ശ്രദ്ധിക്കണം ഇട്ടാള്ളേ കൊഴപ്പെന്തെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ഇതിൻ്റെ നെറമങ്ങും നമുക്ക് ഒരു മാസം ഉപയോഗിക്കേണ്ട സാനം നമ്മള് രണ്ടാഴ്ച്ച കൊണ്ടീ സാധനം എല്ലാം നെറമങ്ങി എല്ലാം പോവും പിന്നെ പിന്നെ വർഷത്താണെങ്കില് വെച്ച് കഴിഞ്ഞാ ഇത് നമ്മള് ആ ഒരു കാറ്റ് വന്നാ നമ്മള് അഴേലൊ അവടെ കൊണ്ടിട്ട് വേണം നമ്മള് ഇതൊക്കെ ചെയ്യാനാട്ട് അതല്ല മറ്റേ ഈ വാഷിങ് മഷീനൊക്കെ ഇണ്ടെങ്കി പിന്നെ നമുക്ക് പരമാവധി നമുക്ക് അയിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാ കൊറേ അതില് തന്നെ ഒരു പത്ത് ശതമാനം ഒക്കെ ഒണങ്ങി കിട്ടും വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരെന്തെ യ്യും വാഷിംഗ് മെഷീൻ ഇല്ലാത്തർക്ക് ചെയ്യാനുള്ള മഴാന്ന് വെച്ചാ മഴെത്ത് ഒരു അഴ കെട്ടിട്ട് അതില് നമ്മടെ ഒരു നമ്മടെ ഒരു വേണം ഒരു അതിനകത്ത് വേണം ഒരു എന്നതാ ഒരു പാമ്പുക ഒരു പോർച്ചിലോ അല്ലെങ്ക് അകത്തെങ്ങനാം വിരിച്ചമായി ഇടണെത് അത് കൂട്ടിട്ടാ ഒള്ള കൊഴപ്പെന്ന വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് കരിമ്പൻ പിടിക്കേം ചെയ്യും അതില് മാ ഒരു വടച്ചൊരു മണം ഇണ്ടാവും ചെയ്യും അപ്പ അത് നമ്മള് സൂക്ഷിക്കണം ഇതൊക്കെയാണ് വസ്ത്രം പറ്റി ഉള്ള കാര്യങ്ങള് പിന്നെ വെള്ളംന്ന് വെച്ച് കഴിഞ്ഞാ അനാവശ്യമായിട്ട് വെള്ളം പാഴാക്കാൻ പാടില്ല കാരണംന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് ഒര് ആ ബക്കറ്റ്ന് വെളളം എടുത്തു കഴിഞ്ഞാല് ആ ഇതിൻ്റെ തുണിയെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞിട്ട് വേണം അട്ത്തത് രെണ്ടാതും ഓൺ ചെയ്യാനായിട്ട് അല്ലാണ്ട് ഓരോ വസ്ങ്ങത്രങ്ങള് അലക്കുന്തോറും ഇ വെള്ളങ്ങനെ വിട്ടോണ്ടിരിന്നാലുള്ള കൊഴപ്പംന്ന് വെച്ച് കഴിഞ്ഞാ ആ വെള്ളംങ്ങനെ പാഴായിപോയോണ്ടിരിക്കും അപ്പ ആനേരോണ്ട് നമക്കൊര് വസ്ത്രം നമുക്കെന്താണ് നമ്മക്ക് കാണ വെള്ളം ഒരു ബക്കറ്റിനകത്തേക്ക് എടുത്തിട്ട് ആ ടാപ്പ് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മള് ഈ വെള്ളംന്ന് ലാഭിക്കാം അതല്ലാ വെറ്തെ തൊറന്നിട്ട് ഓരൊന്ന് ഓരോ തുണിക്ക് വേണ്ടി നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം കണ്ടാമാനം നഷ്ടായി പോവും അത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ദൂഷ്യം ചെയ്യേം ചെയ്യും അപ്പ അപ്പ അയിനേറ്റവും നല്ല കാര്യന്ന് വെച്ച് കഴിഞ്ഞാ വെള്ളം നമ്മള് സ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇത് അനാവശ്യമായിട്ട് വെള്ളം കളയാതെ നമ്മള് സൂക്ഷിക്കുക അതാണ് ചെയ്യേണ്ടത് പിന്നെ വർഷത്തുള്ള കാര്യ ഞാപ്പൊ നിന്നോട് പറഞ്ഞില്ലെ വർഷത്ത് നമക്ക് വെയിലത്തിടാൻ പറ്റില്ലല്ലോ അപ്പരാ ഒരു മുറിക്കകത്തോ അല്ലെങ്കില് വല്ല ഷെഡുള്ള സ്ഥലത്തോ അവിടെ അഴകെട്ടി കാറ്റ് കൊണ്ടാണ് ഇത് ഒണങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയാണ് വർഷത്തെ തുണിയൊണക്കലിനെ പറ്റി പറയാനുള്ളത് അ പിന്നെ വെള്ളത്തിൻ്റെ കേസ്ന്ന് ഞാൻ പറഞ്ഞ പോലെന്നെ വെള്ളത്തിൻ്റെ കേസ്ട്ട പിന്നെ വേനല്ക്ക് എന്താന്ന്ച്ച്ഴിഞ്ഞാ തുണി വെ ഫുള്ളായിട്ട് വെയിലത്തിടരുത് അപ്പ അതിൻ്റെ പേരില് അ ഒരു ഷെഡൊള്ള സ്ഥലം നോക്കിട്ടാണ് ഈ ഷർട്ടൊ മുണ്ടൊ എന്ത് തുണികളൊക്കെ ഇടാമ്പാടുള്ളു അപ്പ അതിനുള്ള നല്ല നെറം കിട്ടേം ചെയ്യും ആ അഞ്ചേം കിട്ടേം ചെയ്യും പിന്നെ തേക്കുമ്പുള്ളതു പോലെ നേര്യോരു കടും ചൂടോടെ തേക്കരുത് നമ്മള് തേക്കാൻ നേരത്ത് ഒരു ചെറിയൊരു മൂലം നോക്കി മുന്നെ തേപ്പെട്ടി വെച്ച് നോക്കണം അന്നിട്ട് വേണം ഫുള്ളായിട്ട് തേക്കാനാട്ട് അല്ലെങ്കില് പെട്ടെന്ന് ചൂടോടെ നമ്മള് തേക്കാൻ തേക്കാൻ പോയ് കഴിഞ്ഞാ ചെലപ്പോ ആ ഷർട്ട് പെട്ടെന്ന് കത്തി പിടിക്കേം ചെയ്യും അത് നമ്ക്ക് നഷ്ടപ്പെടേം ചെയ്യും ഇതൊക്കെയാണ് നമുക്ക് അധികം വസത്രങ്ങളെ പറ്റി പറയാനുള്ളത് കഴ്കണേ പറ്റി പറഞ്ഞല്ലോ അപ്പന്നെ വെള്ളം പാഴാക്കുന്നതിനെ പറ്റി നമ്മള് പറയും പറയും കൂടി ചെയ്തു ഇതി കൂടല് ഒന്നും എനിക്ക് പറയാനില്ല ഓക്കെ